വയനാട് ജില്ലയിലെ പ്രധാന ആഘോഷങ്ങളെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളിയൂർക്കാവ് ഉത്സവം അത് വായനാട്ടിലൊരു വല്യ ചടങ്ങാണ് അല്ലെങ്കിൽ വലിയൊരു ആഘോഷമാണ് കാരണം അതിന് എന്താ പറയുക ഇപ്പം ടൂറിസ്റ്റുകളൊരുപാട് വന്ന് സന്ദർശിക്കുന്നൊരിതാണ് ആ ഒരു ഉത്സവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം അതായിരിക്കും കാരണം അത് ഒരു ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ് മെയിനായിട്ട് ഒറ്റ ദിവസമായിരിക്കും ബട്ട് ഒരു മാസമത് ഉണ്ടാവും അവടെ ഒരുപാട് ആൾക്കാർ വന്ന് സന്ദർശിക്കുന്നൊരു സ്ഥലമാണ് അത്രയും വലിയൊരു ആഘോഷമാണത് അതുപോലത്തന്നെ ദീപാവലി ഓണം ഇങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ വയനാട്ടിൽ വലിയൊരു സംഭവമാണ് ഓണത്തിനാണെങ്കിൽ മാവേലി വരും അത്തപ്പൂക്കളമിടും പുതിയ ഓണക്കോടി അങ്ങനത്തെ ഒരുപാട് പരിപാടികളും ചടങ്ങുകളുമൊക്കെയുണ്ട് അതുപോലത്തന്നെ വിഷു വിഷുവിന് കണികാണും അതുപോലത്തന്നെ കൈനീട്ടം കിട്ടും അമ്പലത്തിൽ പോകും അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ അതിനുണ്ട് ഏ അങ്ങനത്തെ എല്ലാ പരിപാടികളും അത് പിന്നെ ഹോളിക്കാണെങ്കിൽ കളറ് വാരി വാരി ഇതാക്കുകയും അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകൾ ഇപ്പം ഉണ്ട് അതുപോലത്തന്നെ വയനാട്ടിലെ ക്രിസ്മസ് ഒരു വലിയ ആഘോഷമാണ് ക്രിസ്മസിന് രാത്രി ഒരു ആ വെളുപ്പാങ്കാലത്ത് മറ്റേ ആ മറ്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും അതുപോലത്തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ വരും അത് സന്ദർശിക്കും പിന്നെ അങ്ങനെ ഒരുപാടിതുണ്ട് ദീപാവലിക്കാണെങ്കിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ കഴിക്കുന്നൊരു ഫെസ്റ്റിവലാണത് ഇതെല്ലാം വയനാട്ടിൽ പ്രധാന ആഘോഷങ്ങൾ തന്നെയാണ് ഒരു വലിയ ആഘോഷം തന്നെയാണിതൊക്കെ വയനാട്ടിലെ